വയനാട് ജില്ലയിലെ വികസനംന്നക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ മെയ്നായിട്ടും നമ്മുടെ വിദ്യാഭയസത്തിൻ്റെലും പിന്നെ നമ്മടെ കെട്ടിടങ്ങൾടേലും നമ്മുടെ ആധുനിക സംവിധാനങ്ങളിലേക്കുള്ള വളർച്ചയാണ് വികസനംന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അപ്പം നല്ല രീതിയിലുള്ള വികസനോം കാര്യങ്ങളക്കെ ഉണ്ട് പണ്ടത്തെ കാലത്തെന്ന് പറഞ്ഞാൽ ഓടിട്ട കെട്ടിടങ്ങളും ഓടിട്ട വീടുകളും പിന്നെ ഷീറ്റ് ഇട്ട വീട് പുല്ല് മേഞ്ഞ വീട് അങ്ങനത്തെ വീടുകളൊക്കെയായിരുന്നു ഇപ്പോൾ കെട്ടിടങ്ങളിൽ തന്നെ നല്ല രീതിയിലുള്ള വ്യത്യാസോം കാര്യങ്ങളൊക്കെയുണ്ട് ഇപ്പെല്ലാം ഹയ് ടെക് കെട്ടിടങ്ങളൊക്കെയി കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാലിപ്പോൾ വാർക്ക വാർത്തിട്ടുള്ള കെട്ടിടങ്ങളും കാര്യങ്ങളൊക്കെ വന്നു പിന്നേ ആ ഇപ്പോൾ കാര്യങ്ങൾ ഇപ്പോൾ ചെറു വഴികളൊക്കെ കുറവാണ് ഇപ്പോൾ നല്ല രീതീലുള്ള ഹയ് വേ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് മലയോര ഹയ് വേ ഇപ്പോൾ കടുകളുടെ ഉള്ളി കൂടെ തന്നെ ഹയ് വേ കാര്യങ്ങളൊക്കെ വന്നത് കൊണ്ട് വികസനം നല്ലോണം വ്യാ വ്യാപിപ്പിച്ചിട്ടുണ്ട് പിന്നേന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ വിദ്യാഭ്യാസമാണ് വിദ്യാഭ്യാസം ഇപ്പോൾ എല്ലായിടത്തും നല്ല അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട് ഇപ്പെല്ലാവർക്കും ഇപ്പോൾ മൊബൈലിലൂടെ ആണെങ്കിലും നമ്മക്കിപ്പം എല്ലാ കാര്യങ്ങളും അറിയാനും കാര്യങ്ങൾക്കൊക്കെ പറ്റുന്നുണ്ട് പിന്നെ എല്ലായിടത്തും ഇൻ്റെർനെറ്റ് സൗകര്യോം കാര്യങ്ങളൊക്കെ പെട്ടന്ന് തന്നെ വരുന്നൊണ്ട് തൊഴിലവസരങ്ങൾ കൂടുതലായിട്ട് കിട്ടുന്നൊണ്ട് എല്ലാർക്കും ഇതക്കെയാണ് മെയ്നായിട്ട് വികസനംന്ന് പറഞ്ഞ് കഴിഞ്ഞാല്